ഹലോ പിന്നെ ഞാാൻ ദുബായിയിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ദുബായ് ഒക്കെ ഫുള്ള് വിസിറ്റ് ചെയ്ത് കണ്ടു നമ്മൾ തിരിച്ച് പോരാനുള്ള ഒരുക്കത്തിൽ ഷോപ്പിങ്ങന് വേണ്ടി പോയതാണ് ഷോപ്പിങ്ങിന് വേണ്ടി പോയ സമയത്ത് എൻ്റെ പേഴ്സടക്കം കിട്ടും ഞാൻ പേഴ്സിൽ പേഴ്സിലായിരുന്നു എൻ്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ആണെങ്കിൽ ആ പാസ്പോർട്ട് പുതുക്കേണ്ട സമയം ഉണ്ട് അത് പുതുക്കിയാലെ എനിക്ക് നാട്ടിലേക്ക് എത്താനും പറ്റുള്ളൂ അപ്പോൾ എന്താണ് തിരിച്ച് വന്നാൽ പാസ്പോട്ടില്ല നമ്മൾ ഈ കേസോ കൊടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ അതിൻ്റെതായ ഏജൻസി പോയിട്ട് നീ ഒന്ന് അന്വേഷിക്കണം അപ്പോൾ പാസ്സ്പോട്ട് നഷ്ടപ്പെട്ടെങ്കിലും അത് പുതുക്കാൻ പുതുക്കാനുള്ള മറ്റ് മാർഗങ്ങളെ കുറിച്ചും അതിൻ്റെതായ രീതിയിൽ നീ നാട്ടിലൊന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ അത് നീ ഒന്ന് പെട്ടന്ന് വേഗത്തിലാക്കിത്തരണം കാരണം ഞാൻ ഇവിടെ ഇവിടെ ടൂറിസ്റ്റ് വിസക്ക് വന്നതായത് കൊണ്ട് എനിക്ക് ഒക്കെ നിൽക്കണതിന് ലിമിറ്റ് ഉണ്ട് അധികം സമയത്തൊന്ന് എനിക്ക് ഇവിടെ അധിക കാലം എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല അത് കേസാകും അതുകൊണ്ട് നീ നാട്ടിൽ അതിൻറേതായ ഒരു കാര്യം എന്ന് പെട്ടന്ന് വേഗത്തിലാക്കണം ശരി ഓക്കെ ടാങ്ക് യൂ